ആരോഗ്യകരമായ ജീവിതശൈലികൾക്ക് കായിക വിനോദം വളരെ ഉപയോഗപ്രദമാണ് കായിക രംഗത്തെ മാനസിക നേട്ടങ്ങളും സമൂഹത്തിനിടയിലെ ഉന്ന ഉന്നതകൾക്കു കാരണമാകുന്നു സ്പോട്സ് മുഖേന എത്ര ആളുകളാണ് സമൂഹത്തിൽ രക്ഷപ്പെട്ടത് സാധാരണക്കാർക്കും തൻ്റെ പ്രയത്നം കൊണ്ട് സ്പോർട്സിൽ ഉന്നത വിജയങ്ങൾ നേടാൻ സാധിക്കുന്നതാണ് വയസര വയസ്സായ പ്രായമേറിയ ആൾക്കാർക്ക് സ്പോർട്സ് രംഗത്ത് കാര്യങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ പ്രയാസമാണ് എങ്കിലും അവരുടെ സമൂഹ ജീവിതത്തിൽ അതു വളരെ പ്രാപ്തമാക്കാൻ സാധിക്കും സമൂഹത്തിൽ സ്പോർട്സ് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നു ആളുകൾ സ്പോർട്സിൽ എല്ലാവർക്കും താത്പര്യം ഉണ്ട് താത്പര്യമില്ലാത്തവരുമുണ്ട് താത്പര്യമുള്ളവരുമുണ്ട് താത്പര്യമുള്ളവരാണ് കൂടുതൽ ആരോഗ്യകരമായ ജീവിത ശൈലികൾക്ക് കായിക വിനോദം വളരെ നല്ലതാണ് കായിക രംഗത്തെ മാനസിക നേട്ടങ്ങൾ അത് എല്ലാവരിലും കാണപ്പെടുന്നു എനിക്ക് കായികം എൻ്റെ എനിക്കിഷ്ടപ്പെട്ട കായിക വിനോദത്തിൽ ഒന്നാണ് ഫുട്ബോൾ ഫുട്ബോളെനിക്കു വളരെ സന്തോഷം നൽകുന്നു ഫുട്ബോൾ കളിക്കാൻ നേരം എനിക്ക് വളരെ സന്തോഷ പ്രദമായ ഒരു അനുഭവപ്പെടാറുണ്ട്